ആ അതെയതെ ഇതാരാ സംസാരിക്കുന്നത് ആ മാനേജരാണ് സംസാരിക്കുന്നത് ഓക്കെ എത്ര പവനുണ്ട് കയ്യിൽ ഓക്കെ അപ്പോൾ കുറച്ച് വലിയ എമൗണ്ടാണ് വേണ്ടത് അല്ലേ ഗ്രാമിന് ഇപ്പോഴത്തെ റേറ്റ് സിക്സ് തൗസൻഡാണ് അപ്പോൾ നമ്മളൊരു അയ്യായിരത്തി അഞ്ഞൂറുവരെ കൊടുക്കുന്നുണ്ട് ആ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ ആ അത് കുഴപ്പമില്ല അതിൻ്റെ പാസ്ബുക്ക് ഉണ്ടാവുമല്ലോ അതുമായിട്ട് വന്നാൽ മതി പിന്നതുപോലെയൊരു ആധാർ കാർഡുണ്ടെങ്കിൽ അതിൻ്റെയൊരു കോപ്പിയും ഒറിജിനലും കൊണ്ടുപോര് പിന്നെ ഗോൾഡും ഈ പാസ്സ്ബുക്കുമായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്കത് ഗോൾഡ് ലോൺ തരാം ഇപ്പോൾ ഇന്ന് ആ എന്നേക്കാണ് വേണ്ടത്

ഇപ്പോൾ പറ്റും എന്നുണ്ടെങ്കിൽ പോരെ ഇപ്പോൾ അധികം തിരക്കില്ലാത്ത സമയമാണ് ഞങ്ങളൊരു അഞ്ചുമണിവരെ ഉണ്ടാവും അപ്പോൾ ഒരു നാലുമണിയുടെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രൊസീജറൊക്കെ ചെയ്തിട്ട് നമുക്ക് ഗോൾഡൊക്കെയൊന്ന് നോക്കിയതിൻ്റെ ശേഷം ഒരു രണ്ടുമണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ ഗോൾഡ് നോക്കലും കാര്യങ്ങളൊക്കെ കഴിയും ഇല്ലാല്ലേ അപ്പോൾ നാളെയൊരു പത്തുമണിക്ക് ശേഷം വന്നാൽ മതി അപ്പോൾ നമുക്കത് ചെയ്യാം പിന്നെ ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത് ആ നമ്മൾ ഇപ്പോൾ ഒരു എട്ട് ശതമാനമാണ് പലിശ വരുന്നത് നിങ്ങൾക്ക് വേണമെന്ന് ഉണ്ടെങ്കിൽ മാസം മാസം അടയ്ക്കാം അല്ലാ എന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി ആയിട്ട് അല്ലെങ്കിൽ ഇയർലി അങ്ങനെയാണിപ്പം നമ്മളടയ്ക്കുന്നത് അപ്പോൾ അതിൽ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് നോക്ക് നോക്കിയിട്ട് പറയാം ഇപ്പോൾ ഇതൊരു പത്തുപവനുണ്ടാവും അല്ലേ അപ്പോൾ അത്രയും വലിയ എമൗണ്ട് വേണോ ആ ഒരു എണ്ണൂറ് ഗ്രാമിന് അടുത്തായി ഗോൾഡുണ്ട് അപ്പോൾ നമുക്ക് അത് കുഴപ്പമില്ല നമുക്ക് ഇപ്പോൾ ബാങ്കിൽ റഷ് അവറല്ല അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് പറ്റില്ല അല്ലേ ഉം

ആ ആ ശരി അപ്പം ഇല്ല നാളെ ആ അത് നമുക്കത് ചെക്ക് ചെയ്യണം അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു തട്ടാനുണ്ട് അയാളുടെ അടുത്ത് ഇത് കൊടുത്തിട്ട് അത് ചെക്ക് ചെയ്യണം ഗോൾഡ് ഒറിജിനൽ തന്നെയാണോ എന്നൊക്കെയൊന്ന് ചെക്ക് ചെയ്യുന്ന പരിപാടി മാത്രമേയുള്ളു അപ്പോൾ നിങ്ങളൊരു ആ എന്നാലും നമുക്കതൊരു പ്രൂഫ് വേണ്ടേ മാഡം നമുക്ക് ഇപ്പോൾ നിങ്ങളിവിടെ അക്കൗണ്ടുള്ള ആളാണ് അത് ഓക്കെ പക്ഷെ നമ്മളിപ്പോൾ ഒരു ഒറിജിനൽ ഗോൾഡ് തന്നെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നമുക്ക് അതൊരു പ്രൂഫായിട്ട് വെക്കണെ ഇല്ലെങ്കിൽപ്പിന്നെ മേലെ നിന്ന് അത് ചോദ്യങ്ങൾ വരും നമ്മൾ ചെക്ക് ചെയ്യാണ്ട് വയ്ക്കാൻ പറ്റില്ല അതാണ് അപ്പോൾ അത് ജസ്റ്റൊന്നു ആ ഇത് കാർഷികലോണിൻ്റെ ഇതിൽ വയ്ക്കുകയാണ് എങ്കിൽ അങ്ങനെ വയ്ക്കാം അല്ലാ എന്നുണ്ടെങ്കിൽ വേറെ സാധാ ലോൺ ഗോൾഡ് ലോൺ മാത്രമാക്കിയിട്ട് വയ്ക്കാം കർഷികലോണാക്കിയിട്ട് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ പലിശ കുറച്ച് കുറവായിരിക്കും മറ്റേതാണെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് പലിശ ഒരു എട്ട് ശതമാനത്തിൻ്റെ മേലേക്ക് വരും ഓക്കെ ആ അപ്പോൾ കാർഷികലോണിലേക്ക് ആക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കുക ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നികുതിയടച്ച റെസീപ്റ്റൊക്കെ കൊണ്ടുവരേണ്ടി വരും അപ്പോൾ ഇത് എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് മാഡത്തിന് ഞാൻ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നോക്കീട്ട് എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഓക്കേ ശരി കേട്ടോ